എൻ്റെ അനിയത്തിയുടെ അനിയത്തിയുടെ മകളുടെ കല്യാണമാണ് യു കെ വെച്ച് അപ്പോള് അവള് ടിക്കറ്റൊക്കെ എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കല്യാണത്തിന് നിർബന്ധമായിട്ട് ചെല്ലണമെന്നും പറഞ്ഞു പക്ഷേ ഞാൻ പണ്ട് വർക്ക് ചെയ്തോണ്ടിരുന്ന സമയത്തൊക്കെ പോയതല്ലേ പുറത്തോട്ട് അതുകൊണ്ട് പാസ്പോർട്ട് ഈയിടെ അവള് വിളിച്ചപ്പോഴാണ് എടുത്ത് നോക്കിയത് വന്നപ്പത്തേക്കിനു ആണ്ടാ കാലാവധി കഴിഞ്ഞ് കിടക്കുന്നു ഇനി ഇപ്പോള് അതു പുതുക്കാനായിട്ട് കൊടുക്കണം അതിന് എന്നാ ചെയ്യണമെന്ന് അറിയാൻ മേലാതെ ഇങ്ങനെ ഇരിക്കുവാ പാസ്പോർട്ട് പുതുക്കാനിപ്പോള് അക്ഷയ വഴിയൊക്കെ കൊടുത്താല് സമയമെടുക്കുമെന്ന് തോന്നുന്നു പെട്ടെന്ന് കിട്ടത്തില്ലെന്ന് തോന്നുന്നല്ലേ അക്ഷയ വഴിയൊക്കെ കൊടുത്താല് സമയമെടുക്കും അവര് ഫോമെല്ലാം അക്ഷയ അവര് ഓൺലൈൻ വഴി അയച്ച് എല്ലാം സമയമെടുക്കും അല്ലേ പിന്നെ നേരിട്ടെങ്ങാനും പോയി നോക്കണം ഏതാലും ഫ്രീയായിട്ട് ടിക്കറ്റൊക്കെ കിട്ടുന്നതല്ലേ പോകാനൊരവസരം കിട്ടുന്നതല്ലേ അതുകൊണ്ട് കല്യാണം നമുക്ക് അത് ഒഴിവാക്കാൻ പറ്റത്തില്ല എങ്ങനേലും പോകണം അവിടങ്ങളിലൊക്കെ ഒന്നു പോയി കാണുകയൊക്കെ ചെയ്യാമല്ലോ ഇനിയിപ്പോള് നമ്മുടെ കാര്യവുമല്ലേ മനുഷ്യൻ്റെ കാര്യവുമല്ലേ പോകാൻ പറ്റുവോ എങ്ങനാന്നൊന്നും അറിയത്തില്ലല്ലോ അതുകൊണ്ട് എങ്ങനേലും ഒന്ന് പോകണമെന്ന് വിചാരിക്കുന്നു ഇനി പാസ്പോർട്ട് ഇങ്ങനെ കാലാവധി കഴിഞ്ഞതുകൊണ്ട് അതിനെന്നാ ചെയ്യണ്ടതെന്നറിയാൻ മേലാതെ ഇങ്ങനെ ഇരിക്കുവാ അത് ഇനിയും അക്ഷയയിൽ പോയാലവരെനിക്ക് തോന്നുന്നു സമയമെടുക്കുമെന്ന് തോന്നുന്നു പിന്നെ ഇപ്പോള് എല്ലാം സ്പീഡിൽ കിട്ടുന്ന കാര്യങ്ങളുണ്ടെന്ന് തോന്നുന്നു നേരിട്ട് പോയാൽ സ്പീഡിൽ അതെല്ലാം പാസ്പോർട്ടൊക്കെ ചെയ്ത് തരുമെന്ന് തോന്നുന്നു ഇനി പാസ്പോർട്ട് ഓഫീസ് ആലപ്പുഴയിലെങ്ങാണ്ടാണ് ഇനി അവിടെ പോയി ഒന്ന് അന്വേഷിക്കണമെന്ന് വിചാരിക്കുന്നു ഒന്ന് സമയം കിട്ടണ്ടേ ഒന്നിറങ്ങാൻ ഒന്ന് പോയി ഒന്ന് അന്വേഷിക്കണം എന്നിട്ടേതായാലും കല്യാണത്തിന് പോകണം കല്യാണത്തിന് കിട്ടുന്ന ചാൻസല്ലേ കളയണ്ട അവിടെ അവരൊക്കെ വർഷങ്ങളായിട്ട് അവിടെ താമസിക്കുന്നാ അവിടൊക്കെ ചെന്നാല് നമ്മള്ക്ക് ഒന്ന് എല്ലായിടവും ഒന്ന് കറങ്ങി കണ്ടെല്ലാം പോരാമല്ലോ അങ്ങനെ പോകണമെന്ന് വിചാരിക്കുന്നു ഇനി പാസ്പോർട്ടിൻ്റെ കാര്യത്തിലാണൊരു പ്രശ്നമായിട്ട് നില്ക്കുന്നത് ടിക്കറ്റൊക്കെ അവളെടുത്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോള് ഇവിടെനിന്ന് വേറെ ആൾക്കാര് എൻ്റെ ആങ്ങളയും അവരുമിവരുമൊക്കെ പോകാൻ ഒരുങ്ങുന്നുണ്ട് അവരുടെ കൂട്ടത്തിൽ പോയി ഒരാഴ്ചയൊന്ന് അവടെയെല്ലാമൊന്ന് കറങ്ങിത്തിരിഞ്ഞ് വരാമെന്ന് വിചാരിക്കുന്നു അങ്ങനെയിരിക്കുന്നു കാര്യങ്ങളൊക്കെ